ആറ് ഒന്ന് രണ്ടായിരത്തി ആറ് ഏഴ് പത്ത് രണ്ടായിരത്തി പതിനേഴ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്